ഞാൻ കോഴി വളർത്തലിലും താറാവു വളർത്തലും ഒക്കെ ആയിരുന്നു കോഴി വളർത്തിയാൽ നമ്മക്ക് നല്ല രീതിയിൽ നമുക്ക് ആദായം എടുക്കാൻ പറ്റും കോഴി വളർത്തൽ കൊണ്ടു നമുക്ക് മുട്ടയാണെങ്കിലും ഇറച്ചിക്കാണെങ്കിലുമൊക്കെ നമുക്ക് അതുകൊണ്ടു ഒത്തിരി ഒത്തിരി ലാഭമാണ് നമുക്ക് കിട്ടുന്നത് കുടുംബത്തിലെ വരുമാനം നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസ്സ്നസ്സാണ് കോഴി വളർത്തലും താറാവു വളർത്തലും പിന്നെ പിന്നെ ഇറച്ചിക്ക് ആൾക്കാർ വരുമ്പോഴത്തേക്കും നമുക്ക് കോഴി ഇറച്ചിക്ക് ആയിട്ടൊക്കെ നമ്മൾക്ക് കൊടുക്കാൻ പറ്റും താറാവും അതുപോലെ തന്നെ മുട്ടയ്ക്ക് നമുക്ക് ഒരു താറാവ് മുട്ടയ്ക്ക് പത്ത് രൂപ വച്ചൊക്കെ കിട്ടും നമ്മൾക്ക് എനിക്ക് ഒരു ഇരുപത്തി അഞ്ച് താറാവും അമ്പത് കോഴിയുമായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഒരു ഫാം പോലെയാണ് വളർത്തികൊണ്ടിരുന്നത് പിന്നെ വെള്ളപ്പൊക്കമൊ ക്കെ വന്നപ്പോളൊക്കെ ഓത്തിരിയും നാശനഷ്ടങ്ങൾ നമുക്ക് ഉണ്ടായെങ്കിലും അതു കഴിഞ്ഞു നമ്മൾ കോഴി വളർത്താനും താറാവ് വളർത്താനും പിന്നേയും ഉത്സാഹം കാണിച്ചു മുന്നോട്ടു വന്നു അതിൽ നിന്ന് ഒരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് നല്ലരീതിയിലുള്ള നമുക്ക് ബിസിനെസ്സ് മുന്നോട്ടു കൊണ്ടു പോവാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ ഇത് പക്ഷി പനിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒത്തിരി നമ്മൾ ബിസ്സിനസ്സിനെ അത് ശരിക്കും ബാധിച്ചിട്ടുണ്ട് ഒത്തിരി എണ്ണത്തിനെ നമ്മൾക്ക് കുഴിച്ചു മൂടാനായിട്ട് പറ്റി അപ്പം അതൊക്കെ നമുക്ക് വളരെ അധികം നഷ്ട്ടമായിരുന്നു പിന്നെ അത് കോഴിയൊക്കെ കൊണ്ട് ആണെങ്കിലും എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ രീതിയിലും ഒക്കെയാണെങ്കിലും നമ്മൾക്ക് ഒത്തിരി ഒത്തിരി അനുകൂല്യങ്ങളാണെങ്കിലും നമ്മൾക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കോഴി വളർത്താനായിട്ട് നമ്മൾക്ക് കിട്ടുമായിരുന്നു മൃഗാശുപത്രിയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് പത്തു കോഴിയൊക്കെ അവർ തുച്ഛമായ വിലയ്ക്കൊക്കെ തന്നിട്ടുണ്ട് സബ്സിഡി ഇനത്തിൽ അതിൽ നിന്നൊക്കെ ഞങ്ങൾ ഒത്തിരി ലാഭങ്ങളാണ് ഉണ്ടാക്കി കൊണ്ടിരുന്നേച്ചത് അപ്പോൾ അങ്ങനെ മുന്നോട്ടു നമ്മുടെ കോഴി വളർത്തലും താറാവു വളർത്തലുമെല്ലാം നല്ല രീതിയിൽ ആയിട്ട് മുന്നോട്ട് പോകുന്നു പിന്നെ ഇതിൻ്റെ ഈ അസുഖം വരുമ്പോഴത്തേക്കുള്ള ബുന്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ പ്രദേശങ്ങളിൽ മിക്കവരും കോഴിയും താറാവിനെയൊക്കെ വളർത്തുന്നവരാണ് അതിൽ നിന്നും നമ്മൾക്ക് നല്ല മെച്ചമാണ് ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നു ഇനിയും ഇതിനെ ഫാം പോലെ വളർത്തി ഒരു സംരംഭം നല്ല രീതിയിൽ മുന്നോട്ടു കൊണ്ടുപോവാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ടു കൊണ്ടുപോണം അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇണക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നല്ല ഒരു വരുമാനാണ് നമ്മൾക്ക് അതിനകത്തു നിന്ന് കിട്ടുന്നത് അത് നമ്മൾക്ക് എവിടേയും പറയാം കോഴിയുടെ ആണെങ്കിലും താറാവിൻ്റെ ആണെങ്കിലും നല്ല രീതിയിലുള്ള വരുമാനം നമുക്ക് കിട്ടുന്നുണ്ടെന്ന്